ഹലോ ആ ഞാനേ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഡ്രൈവറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ആ പുള്ളി രാവിലെത്തന്നെ എത്തുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നാളെ എട്ടുമണിക്ക് ആ അതെ അതെ അതെ എനിക്ക് കറക്റ്റായിട്ടൊന്ന് എത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു കാരണം അർജെന്റ് ആയിട്ട് എനിക്ക് പോകാനുള്ളതാണ് അപ്പോൾ എട്ടുമണിന്നുള്ളത് മാറിയിട്ടത് എട്ട് അഞ്ച് എട്ട് പത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാരണം എനിക്ക് അവിടെപ്പോയിട്ട് അർജെന്റായിട്ടുള്ള ഒരു മീറ്റിങ്ങ് ഉണ്ടായിരുന്നു എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് കാരണം ഒരു രണ്ടുമണിക്കൂറിനടുത്ത് നമുക്ക് യാത്രയുണ്ട് എയർപോർട്ടിലേക്ക് അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറച്ച് നേരെത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പതിനൊന്നുമണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ പത്തരയാകുമ്പോൾ അവിടെ ചെക്കിങ്ങിന് കയറണം അത് കയറിയട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ ഫ്ലൈറ്റ് കിട്ടില്ല അത് മിസ്സ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം അത്രയും പൈസയും കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ എനിക്ക് അർജെന്റായിട്ടുള്ളൊരു മീറ്റിങ്ങും ഉണ്ട് അത് പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഫുൾ നിങ്ങൾക്കായിരിക്കും അതുകൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞത് എട്ടുമണിക്ക് തന്നെ എത്തണമെന്ന് ഓക്കെ ഓക്കേ അങ്ങനെയാണെങ്കിൽ നാളെ കറക്റ്റായിട്ട് എട്ടുമണിക്കുതന്നെ എത്താൻ പറയണം കേട്ടൊ പുള്ളിയോട് ഓക്കെ എന്നാൽ